ഒരാൾക്ക് പെട്ടന്ന് നീന്തല് പഠിക്കാൻ പെട്ടന്ന് കഴിയുമായിരിക്കും പക്ഷേ ആ നീന്തല് പഠിച്ചിട്ട് അത് ട്രെയിനിങ്ങ് ആക്കിയിട്ട് എടുക്കാനാകില്ല അതല്ലെങ്കില് ഇത് ഒരാൾക്കിപ്പോൾ ഒരാളിപ്പോൾ ഒരാളെ ജീവൻ രക്ഷപ്പെടുത്തണമെങ്കിലോ അതല്ലെങ്കില് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ നീന്തണം എന്ന് തോന്നി കഴിഞ്ഞാല് അങ്ങനെ പെട്ടന്നൊന്നും ഒരാൾക്ക് നീന്താൻ പറ്റുകയില്ല അതല്ലെങ്കില് കുറേ ലോങ്ങ് ആയിട്ട് നീന്തണം എന്ന് തോന്നിയാല് നീന്താൻ പറ്റുകയില്ല കാരണം ഇത് എന്താണെന്ന് വച്ചാല് ഏകദേശം ഇത് ഒര് ഒരാൾക്ക് നീന്തണമെങ്കില് ഒറ്റയ്ക്ക് സാധിക്കില്ല അത് ഒരു ദിവസം കൊണ്ടും സാധിക്കില്ല കൊറേക്കാലം അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം ഇത് ഇപ്പോൾ ഡെയ്ലി നീന്തുന്ന ആൾക്ക് ഇപ്പോൾ ദിവസന്തോറും നീന്തിയിട്ട് പരിചയം വേണം ഇപ്പോൾ രാവിലെ ആയാലും ഇത് വൈകുന്നേരം ആയാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും നീന്തി നീന്തി നീന്തിയിട്ട് പരിചയം വേണം അതല്ലാണ്ട് ഒരാൾക്ക് പെട്ടെന്നായിട്ട് നീന്താൻ പഠിക്കാൻ പറ്റില്ല നീന്തം പഠിച്ചാൽ തന്നെ നീന്തല് ബോഡിയിലോരോന്നായിട്ട് ശരീരത്തിൽ നിന്ന് ഓരോന്നായിട്ട് മസില് പിടിക്കാനായാലും അല്ലെങ്കില് കൈ കൈ കാല് വേദനയായാലും നടുവേദനയായാലും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും അതുമാത്രമല്ല പിന്നെ ഒരാൾക്ക് ഇപ്പോൾ ഡ്രിങ്കിങ്ങില് ഒരാൾക്ക് ആ ഒരു പ്രോബ്ലം വരാൻ ചാൻസില്ല മദ്യപാനത്തില് പക്ഷേ സിഗററ്റ് വലിക്കുന്നുണ്ടെങ്കില് സ്മോക്കാക്കുന്നുണ്ടെങ്കില് അതല്ലെങ്കില് വേറെ എന്തെങ്കിലും അതുപോലത്തെ ടോബാക്കോ യൂസ് ആക്കുന്നുണ്ടെങ്കില് എല്ലാം ഒരാളെ ഹെൽത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആ ആൾക്ക് ശ്വാസം എടുക്കാൻ കഴിയില്ല ഏറ്റവും കൂടുതൽ നീന്താനും പറ്റില്ല ഇപ്പോൾ എന്തായില്ലെങ്കില് നീന്തുന്നതിൻ്റിടയിൽ നിന്ന് ആൾക്ക് കിതക്കാൻ തുടങ്ങും കിതക്കാൻ തുടങ്ങിയാല് പിന്നെ ആൾക്ക് നീന്താൻ പറ്റില്ല അപ്പോൾ എവിടെ വച്ച് സ്റ്റോപ്പ് ആകേണ്ടി വരും ഇപ്പോൾ ഇത് ഇപ്പം ഞാൻ ഞാൻ തന്നെ പറയുകയാണെങ്കില് ഇപ്പോൾ ഞാൻ ഏകദേശം കുറേ നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ശ്വാസം എടുക്കേണ്ടി വരും ആ ശ്വാസം എടുക്കുന്ന ടൈം ആ ആൾക്ക് നീന്തുന്ന ടൈമ് ശ്വാസം എടുക്കാൻ പറ്റില്ല അതല്ലെങ്കില് ഇപ്പോൾ നീന്തുന്നതിന് ഇടയിൽ നിന്ന് തന്നെ ഇത് ഓട്ടോമേറ്റിക്കലി ശ്വാസം എടുക്കാൻ പറ്റും ഇപ്പോൾ നീന്തുന്നതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ നീന്താതെ തന്നെ തല പുറത്തിട്ടിട്ട് നീന്തുമ്പോഴേക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളമെടുത്തിട്ട് ആ വെള്ളം വായില് കുപ്പിളിച്ചിട്ട് ഇങ്ങനെ തുപ്പിക്കൊണ്ടെല്ലാം നിൽക്കുമ്പോഴേക്ക് ആ ആൾക്ക് എന്താന്നു വെച്ചാല് ഒര് ഏകദേശം കുറച്ച് സ്റ്റാമിന അവിടെ ഉണ്ടാകും പിന്നെ അതുമാത്രമല്ല ഈ വെള്ളത്തിൻ്റെ ഉള്ളില് കൈയിട്ടിട്ട് നീന്തുന്നില്ലേ ആ ഒരു ടൈമ് ആ ആൾക്ക് ഏറ്റവും കൂടുതല് കുറേ പ്രഷറ് കൊടുക്കേണ്ടി വരും ഇപ്പോൾ കുറച്ച് മൂവ് ആകണമെങ്കില് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൈ അങ്ങോട്ടുമിങ്ങോട്ടും കാട്ടിക്കൊണ്ട് നിൽക്കേണ്ടി വരും അതിന് പകരമായിട്ട് കുറച്ചുംകൂടി പുറത്തേക്ക് കൈ ഏറ്റു നീട്ടിയിറ്റ് രണ്ട് സൈഡിലേക്ക് ആയിട്ട് നീന്തുമ്പോഴേക്ക് അങ്ങനെ അല്ലെങ്കില് ഒര് എസ് ഇട്ടിട്ട് നീന്തുന്ന പോലെ നീന്തിയാല് ആ ആൾക്ക് കുറച്ചും കൂടി ഇത് കുറച്ചും കൂടി പെട്ടന്നായിട്ട് കുറച്ച് ദൂരത്തേക്ക് എത്താൻ സാധിക്കും അതു മാത്രമല്ല പിന്നങ്ങനെ അല്ലെങ്കില് ഇത് നീന്തി നീന്തി നീന്തിയിട്ട് ആൾക്കൊര് ലോങ്ങ് പോകണം അതല്ലെങ്കില് അടിയില് പോയിട്ട് എന്തെങ്കിലും ഒര് വെള്ളത്തിൻ്റെ അടിയില് വേറെ ഒരു കുളത്തിൻ്റെ അടിയില് പോയിട്ട് എന്തെങ്കിലും എടുക്കണം അങ്ങനെ ഒക്കെ ഉണ്ടെങ്കില് ആൾക്ക് ശ്വാസതടസ്സം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ പുകവലി ഒക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് മാറും ആൾക്ക് നല്ലതുപോലെ ശ്വാസം എടുക്കാൻ പറ്റുന്ന രീതിയിലാവണം അതല്ലെങ്കിൽ ഇത് ആൾക്ക് നല്ലതുപോലെ എക്സ്പീരിയൻസ് ആകണം ഇനി ഇത് ഉണ്ട് ഇപ്പോൾ ഒരു പരിശീലനത്തിനായെങ്കിലും വ്യായാമത്തിനായെങ്കിലും എങ്ങനെ ആയാലും ആൾക്കൊരു ഊർജ്ജം വേണമല്ലോ ആ ഊർജ്ജത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ ബോഡിയിൽ ബോഡി റിയാക്ടാക്കാൻ പാടില്ല ആ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബോഡി ശരീരം കളഞ്ഞിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് പെട്ടന്ന് ഒന്നും നീന്താൻ പറ്റൂല്ല നീന്തിയാൽ തന്നെ അയാൾ ഇടയിൽനിന്നു വെച്ചിട്ട് സ്റ്റോപ്പ് ആകേണ്ടി വരും അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാകുക പിന്നെ എന്താണെന്നു വെച്ചാൽ ഇത് നല്ലതുപോലെ ഡെയ്ലി ഡെയ്ലി അല്ലെങ്കിലും രണ്ടു ദിവസത്തിലൊരിക്കൽ എങ്കിലും നല്ലതുപോലെ നീന്തിയിട്ട് ഭേദമുള്ള ആളായിരിക്കണം ഭേദമില്ലെങ്കിൽ നമ്മളെ ശീലമുള്ളായിക്കണം ശീലമുണ്ടായാൽ മാത്രമേ ഒരാൾക്ക് എത്ര ആയാലും എങ്ങനെ ആയാലും ഏത് സിറ്റുവേഷൻ ആയാലും നീന്താൻ പറ്റും അതല്ലെങ്കിൽ ആ ആള് ചിലപ്പോൾ ഒരു പുഴ കടക്കുമ്പോഴേക്ക് ഒരു പാലത്തിൻ്റെ പാലം ചുറ്റുമുള്ള കടക്കേണ്ടി വരും ആ പാലം പാലം കടക്കുന്ന ടൈമ് ആൾക്ക് ആളെക്കൊണ്ട് പറ്റില്ല ഇനി നീന്താൻ പറ്റില്ലായെന്ന് തോന്നി കഴിഞ്ഞാൽ ആ ആള് അറിയാതെ തന്നെ സ്റ്റോപ്പ് ആകും ഇനി എന്നെക്കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞിട്ട് അവിടന്ന് മുങ്ങീട്ട് മരിക്കാനും ചാൻസുണ്ട് അപ്പം ആ ആൾക്ക് മുങ്ങി മരിക്കാണ്ട് തന്നെ അയാൾക്ക് അയാളെ ഒരു സ്വന്തം ജീവൻ രക്ഷിക്കണമങ്കിൽ ഒരു വെല്ലു വിളിച്ചിട്ട് പോയിട്ട് ഇതേ പോയിട്ട് പിന്നെ അവിടന്ന് വിളിച്ചിട്ട് പെടുന്നതിനെകാട്ടി നല്ലത് ആൾക്ക് ആളെ ജീവൻ രക്ഷിക്കണമെങ്കിലും അയാൾക്ക് റിട്ടേൺ വരാനുള്ള ഒരു ശ്വാസം കൂടി വേണം ആതിനുള്ള ഒരു ഊർജ്ജം കൂടി വേണം അതിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഇത് ഒരാൾ എത്ര ആയാലും നീന്തുമ്പോഴേക്ക് ഓവർ പ്രഷർ കൊടുത്തിട്ട് ഓവർ നെഗറ്റീവ് ചിന്തിച്ചിട്ട് നീന്തിക്കൂടായെന്നു പറയുന്നുള്ളത് ആ ഒരു രീതിയിലായിട്ട് നമ്മൾ എത്ര നമ്മൾ നീന്താൻ നോക്കിയാലും നമുക്ക് നീന്താൻ പറ്റും അതല്ലാണ്ട് ഓരോന്ന് ഫേസ് ചെയ്തിട്ട് ഓരോന്ന് പേടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് എല്ലാം നീന്തുന്ന ഉണ്ടെങ്കിലും അതല്ലെങ്കിൽ നല്ലതുപോലെ പുകവലിക്കുന്ന ആളായെങ്കിലും നല്ലത് പോലെ വേറെ എന്തെങ്കിലും ടോബാക്കോ യൂസ് ചെയ്യുന്ന ആളായെങ്കിലും ആ ആൾക്ക് പെട്ടന്നൊന്നും നീന്താൻ പറ്റില്ല പെട്ടന്ന് നീന്തിയാൽ തന്നെ ഇടയിൽനിന്നു വെച്ചിട്ട് സ്റ്റോപ്പ് ആക്കേണ്ടി വരും അതല്ലങ്കിൽ ആ ആൾക്ക് ഓരോ നെഗറ്റീവ് ചിന്ത വരും അപ്പം ആ ചിന്ത വരുമ്പോഴേക്ക് എന്താകും എന്ന് വെച്ചാൽ ഇത് ഇടയിൽനിന്നു വെച്ചിട്ട് സ്റ്റോപ്പ് ആയാൽ ആ ആൾക്ക് പിന്നെ പിന്നെയും പോവാണങ്കിൽ നമ്മൾ സാധാരണ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യില്ലേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് ഗിയർ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിറ്റല്ലേ ഗിയർ ഇടൂ അതുപോലെ ആൾക്ക് പിന്നെയും ഫസ്റ്റ് മുതലേ തുടങ്ങേണ്ടി വരും ആ സെൻ്ററിൽനിന്ന് സെൻ്റ ഈ പുഴയുടെ സെൻ്ററിൽ നിന്നിട്ട് അപ്പം ആൾക്ക് എന്താന്നു വെച്ചാൽ അതേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് മാറും പിന്നെയും നല്ലതുപോലെ പ്രഷർ കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ആളെ ഊർജ്ജം പിന്നെയും പോകും അപ്പം അതിനേക്കാൾ നല്ലത് നല്ലതുപോലെ കണ്ടിന്യൂ ആയിട്ട് സ്മൂത്ത് ആയിട്ട് നീന്തിയിട്ട് പോവണമെങ്കിൽ നല്ലതുപോലെ എക്സ്പീരിയൻസ് ആണ് എപ്പോൾ നീന്തിയിട്ടുള്ളൊരു ഭേദമായ ആൾക്ക് വേണം അതല്ലെങ്കിൽ നല്ലതുപോലെ വെള്ളത്തിൻ്റെ അടിയിൽ നീന്താൻ പറ്റുന്ന ഒരാളായിരിക്കണം അതും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിൽ നീന്താൻ പറ്റുന്ന ആളാണെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിൽ നല്ലതുപോലെ നീന്താൻ പറ്റണം ഇപ്പോൾ അവരുടെ ബോഡി തന്നെ അവർക്ക് ഒരു ചില ചില ആൾക്ക് എത്ര നല്ല തടിയുണ്ടെങ്കിലും ആൾക്ക് വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ വരാനുള്ള ഒരു പക്ഷേ ഇതുണ്ടാകും കഴിവുണ്ടാകും അത് ആ ആൾക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കഴിവല്ല നാലു ദിവസവും അഞ്ചു ദിവസവും അതല്ലെങ്കിൽ അതുപോലെ കുറേ കഷ്ടപ്പാട് സഹിച്ചിട്ട് ചിലപ്പോൾ നാല് മാസമായിരിക്കും ചിലപ്പോൾ നാല് ദിവസമായിരിക്കും അതുപോലെ ഡെയിലി കണ്ടിന്യൂസായിട്ട് കഷ്ടപ്പാട് സഹിച്ചിട്ടായിരിക്കും ആ ആള് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നാൽ മാത്രമേ പിന്നെ അതിനുള്ള റിസൽട്ട് ഉണ്ടാകൂ കഷ്ടപ്പെടാണ്ട് ഒന്നിനും ഒരു റിസൽട്ട് ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയും കൂടി നോക്കാനുണ്ട്